മലയാളഭാഷ മലയാളം സംസാരിക്കണതിൻ്റെ ആവശ്യകത ഇന്നെല്ലാവർക്കുമറിയാം മലയാളഭാഷ സംരക്ഷിക്കുന്നതിനായി പല തരത്തിലുള്ള ഭാഷാപരിപാടികൾ സംസ്ഥാന തലത്തിലാണെങ്കിലും ജില്ല തലത്തിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് പല പല രീതികളിൽ മലയാളഭാഷ ഉയർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും പരമാവധി മാതൃഭാഷയിൽ തന്നെയാണ് കുറിപ്പുകളായാലും പോസ്റ്ററുകളായാലും പ്രസംഗങ്ങളാണെങ്കിൽ പോലും എല്ലാമുപയോഗിക്കുന്നത് സർക്കാർ ഓഫീസുകളിൽ മലയാളത്തിൽ പ്രിൻ്റ് ചെയ്ത കുറിപ്പുകളാണ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ യൂസ് ചെയ്യുന്നില്ല മലയാളത്തിൽ തന്നെയാണിപ്പോഴും പല പല ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥരും സ്ഥലങ്ങളിലാണെങ്കിലും യൂസ് ചെയ്യുന്നത് സംസ്ഥാനതലത്തിൽ കുട്ടികൾക്കായി ഉപന്യാസരചന മത്സരം കവിതരചന മത്സരം മത്സരം എന്നിവ നടത്തുന്നതിലൂടെ മാതൃഭാഷ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം ഇങ്ങനെയെല്ലാം ഓരോ പരിപടികൾ നടത്തുന്നതിലൂടെ മലയാളഭാഷ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും